ഹലോ ഹലോ ആ ഹലോ ഇറച്ചിക്കട അല്ലേ ഇറച്ചിക്കടയല്ലേ ആണ് ഇന്നത്തെ ഇറച്ചി വില എന്നാണ് നാന്നൂറ് നല്ല നല്ല പോത്തിന്റെ ഇറച്ചി വന്നാൽ തരാമോ ആ അപ്പോൾ എപ്പോഴാണ് വരേണ്ടിയത് എനിക്കൊരു പതിനഞ്ച് കിലോ പോത്ത് വേണം അപ്പോൾ അത് നല്ല സാധനവായിരിക്കണം വേണ്ടിയത് ഒരു ഫങ്ങ്ഷന് വേണ്ടീട്ടാണ് ആ കാള കാളയെറച്ചി പോത്തെറച്ചി തന്നെയായിരിക്കണം വേണ്ടിയത് കാളയോ മറ്റ് എന് ഉള്ളതൊന്നും വേണ്ട നല്ല നല്ല സാധനവാണ് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടും വേണ്ടിയത് അപ്പോൾ ഞങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ഞങ്ങൾ വരണ്ടിയത് എല്ലാം നുറുക്കീം ഒക്കെ ആയിട്ട് തരുവല്ലോ ആ പോത്തെറച്ചി തന്നെ ആയിരിക്കണം പിന്നെ അല്ലാതെ അലെര്ജിയോ കാര്യങ്ങളോ ഒക്കെ കഴിക്കുമ്പോൾ കൂട്ടുന്ന ഒന്നും വേണ്ടാ പോത്തെറച്ചി തന്നെ ആയിട്ടാണ് വേണ്ടിയത്

ആ ആ തരാം ആ ആ നാന്നൂറ് രൂപ ഇന്നത്തെ വിലയിലല്ലേ ആ കല്യാണ പരിപാടിക്കാണ് ഫങ്ങ്ഷന് ആ കല്യാണ പരിപാടിക്കായിട്ടായിരുന്നു അപ്പോൾ ആ ആ ഞാൻ എനിക്ക് പിന്നെ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി പ ആറുമണി ആവുമ്പോത്തേനുമാണ് ഇ സാധനം വേണ്ടിയത് പതിനഞ്ചാം തീയതി ആ കുറെ ആ ആ ആ ഓക്കെ പന്നി ആ പന്നി ഇറച്ചി ഉണ്ടല്ലോ ഉണ്ടോ ഉണ്ടല്ലേ ആ അപ്പം അതിന്റെ റേറ്റെന്താ ഇരുന്നൂറ് ആ ആ അപ്പം നമുക്ക് എല്ലൊള്ളതൊന്നും വേണ്ട എല്ല് അല്ലാതെ അത് എല്ല് കളഞ്ഞ് ഉള്ളത് തന്നെ ആണോ ഇരുന്നൂറ് രൂപ വില വരുന്നത് ആണ് ആ ആ അതും ഞുറുക്കി നമുക്ക് ആവശ്യമാണ് ഞുറുക്കിയാണ് വേണ്ടിയത് ആ അവത്തേലൊരു ഇരുപത് കിലോയാണ് വേണ്ടിയത് ആ അത് ആ ആ അപ്പം പയിനഞ്ചാം തീയതിയെത്തേന് ഒരു ഇരുപത് കിലോ പന്നി ഇറച്ചി പതിനഞ്ച് കിലോ ബീഫും പോത്തെറച്ചി ബീഫ്ന്ന് പറഞ്ഞാൽ പോത്തെറച്ചിയാണ് വേണ്ടിയത് ആ ആ ആ ശരി ആ ആ ന ആ നല്ല ഇറച്ചി തന്നെയാണല്ലോ ആ ആ ന നെയ്യ് നെയ്യൊക്കെ കളഞ്ഞ് നമുക്ക് പിന്നെ പന്നിയെറച്ചിക്കെയാണേലും കൂടിയ നെയ്യൊള്ളതൊന്നും വേണ്ട നമുക്ക് ഇറച്ചി തന്നെയായിട്ടാണ് വേണ്ടിയത് നെയ്യ് പിന്നെ പോത്തിന്റെ ആണേലും ഒത്തിരി നെയ്യൊള്ളതൊന്നും വേണ്ട നമുക്ക് ഇറച്ചിയാണ് കൂടുതലായിട്ടും വേണ്ടിയത് തൂക്കവും അളവും ഒക്കെ അതേപോലെ തന്നെ നല്ലതായിട്ട് തന്നെ വേണം ഓക്കെ ആ പതിനഞ്ചാം തീയതിത്തേന് ഓക്കെ ഞാന് തലേദിവസം ഒന്നുംകൂടെ ഓര്മ്മിപ്പിക്കാം ഓക്കെ ഓക്കെ ഓക്കെ